അതിഥികളായിട്ട് എത്തുന്നവർ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നൊരു സംഭവം നല്ല ആദീദേയത്വമായിരിക്കും പ്രധാനമായിട്ടും ടൂറിസ്റ്റായിട്ട് എത്തുന്നവർ നല്ല താമസ സൗകര്യം ഭക്ഷണം അതുപോലെ തന്നെ നല്ല പെരുമാറ്റം ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും ഏറ്റവും പ്രധാനമായിട്ട് അവർ അവർ ചിലവഴിക്കുന്ന പണത്തിനും സമയത്തിനും ഒത്ത മൂല്യം കിട്ടുമോന്നായിരിക്കും നോക്കുന്നത് അതനുസരിച്ചായിരിക്കും ടൂറിസ്റ്റുകൾ അവരുടെ ഡെസ്റ്റിനേഷൻസ് തയ്യാർ തെരഞ്ഞെടുക്കുന്നത് അപ്പം നമ്മൾ പ്രദേശത്ത് വന്നാൽ പണത്തിനും സമയത്തിനും ഒരിക്കലും മൂല്യച്യുതി ഉണ്ടാകൽ ഉണ്ടാവുക ഉണ്ടാവുകയില്ല എന്ന് ഒരു പ്രതിനിധി ജനിപ്പിക്കാനായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കണം അതിനു വേണ്ടീട്ട് നമ്മുടെ നാടിൻ്റെ പ്രകൃതി ഭംഗി നാട്ടിലെ കലകൾ പിന്നെ ചെറിയ കായിക വിനോദങ്ങൾ ഭക്ഷണ രീതികൾ വൈവിദ്ധ്യമാർന്ന അതുപോലുള്ള പല സംഭവങ്ങളും നമുക്ക് സോഷ്യൽ മീഡിയയിൽ പ്രമോട്ട് ചെയ്യാനായിട്ട് സാധിക്കണം അതുപോലെ തന്നെ ടൂറിസ്റ്റായി എത്തുന്നവരെ നമ്മൾ സ്വീകരിക്കുന്ന രീതി നമ്മൾ അവർക്ക് കൊടുക്കുന്ന മര്യാദ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യണം പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വ്യാപകമായതുകൊണ്ട് നാട്ടിൽ നടക്കുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കും അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്താണ്ട് ശ്രമിക്കുക ടൂറിസ്റ്റ് എത്തുകയാണെന്ന് ഉണ്ടെങ്കിൽ അവനാദ്യം നോക്കുന്നത് വെബ്സൈറ്റിലായിരിക്കും വെബ്സൈറ്റിൽ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ നോക്കും പിന്നെ സോഷ്യൽ മീഡിയ യിലൂടെ ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ ഇവരുടെ സംസ്കാരം എങ്ങനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരയാറുണ്ട് അതുകൊണ്ട് ഇതു പോലുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതായത് നമ്മുടെ നാട്ടിൽ വന്നാൽ അവർക്ക് പ്രയോജനകരമാകും എന്നുള്ള രീതിയിൽ നമ്മൾ ഊന്നൽ കൊടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയേൽ പ്രചരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ്കൾ ആകർഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും പ്രത്യേകിച്ച് ഈ നാട് ഇപ്പം എൻ്റെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രമോട്ട് ചെയ്യാൻ എന്തേലും കാര്യം ഈ നാടിൻ്റെ കാർഷിക മേഖലയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെ ധാരാളം പാടങ്ങളും പുഴകളും അതായത് നാട്ടിൽ മുഴുവൻ പുഴകളുമാണ് രണ്ട് സൈഡിക്കൂടെ പുഴകൾ ഒഴുകുകയാണ് അതിൻ്റെ നടുക്കാണ് പുഞ്ചപ്പാടങ്ങളാണ് അതിൻ്റെ നടുക്കവിടെ ഇവിടെയൊക്കെ വീടുകളാണ് തെങ്ങിൻ തോപ്പുകളുണ്ട് അതുപോലെ പ്രകൃതി ഭംഗിയുള്ള ഒരു പ്രദേശമാണ് എൻ്റെ നാട് അതുകൊണ്ടു തന്നെ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രമോട്ട് ചെയ്ത് ഈ പ്രകൃതി ഭംഗിയുടെ നല്ല ദൃശ്യങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ പ്രമോട്ട് ചെയ്യാനായിട്ടൊക്കും പിന്നെ നമ്മൾ നല്ല അതിഥികൾ ആതിഥേയരാണെന്ന് കാണിക്കാൻ വേണ്ടി നാം ഉള്ള നമ്മുടെ നല്ല സുഗമമാണെന്ന് കാണിക്കാനുള്ള രീതിയിലുള്ള വീഡിയോസൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത പ്രൊമോട്ട് ചെയ്യാനെടുക്കും പിന്നെ വെബ്സൈറ്റിൽ കയറി നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് കൂടുതൽ വിവരണങ്ങൾ നൽകാൻ സാധിക്കും നാട്ടിൽ ഈ ഡെസ്റ്റിനേഷൻ്റെ പ്രത്യേകതകൾ അവിടത്തെ ഇവിടെ വരുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും അവതരിപ്പിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഈ സമൂഹമാധ്യമം വേദികളിൽ ഒരു വിനോദ സഞ്ചാരികളെ ആകർഷിക്കാനും നമുക്ക് സാധിക്കും